ഹലോ ആ ഹലോ നമസ്കാരം

അതെ അതെ ആ ആ ഫുഡ് നിങ്ങള് ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിനനുസരിച്ച് ഫുഡ്ഡുകള് നമുക്ക് എത്തിക്കാം അതായത് നിങ്ങള് വലിയ ലക്ഷ്വറിയായിട്ടുള്ള പരിപാടിയാണോ ഉദ്ദേശിക്കുന്നത് അതോ എന്താണ് സാധാ കോമൺ പരിപാടിയായിട്ടാണോ ഉദ്ദേശിക്കുന്നത് ലക്ഷ്വറിയായിട്ടാണെങ്കില് നമുക്ക് പല റേറ്റിലുമുണ്ട് ഒരു ലക്ഷമുണ്ട് രണ്ട് ലക്ഷമുണ്ട് അങ്ങനെ കൂടുന്തോറും സാധനം ഞങ്ങള് ഒപ്പിക്കാം ഐറ്റംസുകളുടെ ലിസ്റ്റ് വേണമെങ്കില് കൊണ്ട് ഡെസേർട്ടുകളാണെങ്കില് നമുക്കൊരു എന്താണ് ഒരു ഈ മിനിമം ഞങ്ങളുടേതൊരു മൂന്നെണ്ണമൊക്കെയുണ്ട് മൂന്നെണ്ണമാണ് പിന്നെ അതില് കൂടുതല് അഞ്ച് പത്ത് ഇരുപത് എത്രയുമാക്കാം നമുക്ക് വേണമെങ്കില് പിന്നെ വെള്ളങ്ങള് വെൽക്കം ഡ്രിങ്ക്സുകള് ഐറ്റംസുണ്ട് അങ്ങനെ കുറേയുണ്ട് ആ പിന്നെ നിങ്ങള്ക്ക് ഫുഡുകള് ഇപ്പോള് നിങ്ങള് ഉദ്ദേശിക്കുന്ന ഫുഡുകള് ഏതൊക്കെയാണെന്ന് പറഞ്ഞാല് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മെനു സെറ്റാക്കിത്തരാം

ആ ആ ആയിക്കോട്ടെ മൂന്ന് തരം ആ പിന്നെ മറ്റേ വെൽക്കം ഡ്രിങ്ക്സില് വെറൈറ്റി എന്തെങ്കിലും ഡ്രിങ്ക്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങള്ക്ക് വേണമെങ്കില് സജസ്റ്റ് ചെയ്യാം അല്ലെങ്കില് ഞങ്ങളൊരു മെനു ഇട്ടുതന്നാലും കുഴപ്പമില്ല നിങ്ങള് വാട്സാപ്പില് കോൺടാക്ട് ചെയ്താല് മതി ഞങ്ങള് ഇട്ടുതരാം നമുക്ക് ഇപ്പോള് കാര്യമായിട്ട് ഇപ്പോള് എല്ലായിടത്തും ഇളന്നീര് പായസം അങ്ങനെ ചിക്കു അങ്ങനെയൊക്കെയാണ് മുന്തിരി ജ്യൂസ് അങ്ങനെയാണ് ഉണ്ടാകാറ് ആ

കേക്ക് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഐറ്റംസ് ഉണ്ടാകും പല ബട്ടർ സ്കോച്ച് അങ്ങനെ കുറേയുണ്ടാകും പിന്നെ ഐസ്ക്രീംസും വേണമെങ്കില് നമുക്ക് ആഡ് ചെയ്യാം ആ സ്റ്റേജിന്റെ വർക്ക് ഞങ്ങളാണ് മൊത്തത്തിലാണ് പരിപാടി മൊത്തത്തില് ഫുള് അറേഞ്ച്മെൻറ് ഞങ്ങള് തന്നെയാണ് ഫണ്ട് ഫുഡിന് മാത്രമാണ് ഞങ്ങള് പറഞ്ഞത് ഒരു ലക്ഷത്തിനടുത്ത് ഒരു രണ്ട് മൂന്ന് ലക്ഷമാണെങ്കില് ലക്ഷ്വറിയായിട്ടല്ലെ നിങ്ങള്ക്ക് വേണ്ടിവരിക മൂന്ന് നാല് ലക്ഷത്തിന് നമുക്കൊപ്പിക്കാം ആ അ എന്നാല് ആ ആയിക്കോട്ടെ നമസ്കാരം വിളിച്ചതിന് നന്ദി താങ്ക് യൂ